വായനാശീലം കുട്ടികളിൽ വളർത്താനായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ടെലിവിഷൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ട് പ്രാദേശികമായ തദ്ദേശീയമായ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പേപ്പർ ന്യൂസ് പേപ്പറെടുത്തു വെച്ച് വായിച്ച് അത് വീട്ടിൽ പ്രായമായവരോ അല്ലെങ്കിൽ വേറെ ആരായാലും ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കത്തക്ക രീതിയിൽ ഒച്ചത്തിൽ വായിക്കുകയാണെങ്കിൽ ഒരാൾ വായിക്കുമ്പോൾ കുട്ടികളാരെങ്കിലും ഒരാൾ വായിക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കെല്ലാവർക്കും കേൾക്കാം ന്യൂസ് എല്ലാവർക്കുമറിയാൻ പറ്റും എല്ലാവരും ആ കാര്യങ്ങളറിയുന്നു ഒരാൾ വായിക്കുന്നതു കൊണ്ട് എല്ലാവരും പേപ്പർ വായിച്ചതു പോലെയുള്ള അനുഭവം കിട്ടും അങ്ങനെ ഒന്ന് ഒച്ചത്തിലൊന്നു വായിക്കാൻ അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളിൽ നമ്മൾ അവരെ കൊണ്ട് വായന വളർത്തുക പിന്നെ കഥ പുസ്തകങ്ങൾ കൊച്ച് കുട്ടികളായിരിക്കുമ്പോൾ പണ്ടു കാലത്തൊക്കെ ബാലരമ ഒക്കെ ഉള്ള കുട്ടികളുടെ ദീപിക ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പിന്നെ വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കാരണം അവർക്ക് നമ്മൾ അ അവർക്കത് വായിക്കാനായിട്ട് താത്പര്യം തോന്നും നമ്മളത് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ വിശുദ്ധരെങ്ങനെയാണ് ജീവിച്ചത് അവരെ എന്താണ് ചെയ്തത് അവർ എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകതയുള്ളവരായി തീർന്നത് എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരാഗ്രഹം അവരിൽ വരുമ്പോൾ അവരാ പുസ്തകം എടുത്തുവെച്ചു വായിക്കും വായിക്കും അങ്ങനെ അവരിൽ വായനാ ശീലം വളരും വളർന്നു വരും പ പിന്നെ വായന കൊണ്ടുള്ള വേറൊരു ഗുണം എന്നാ എന്നു ചോദിച്ചാൽ കുട്ടികളോടു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഒരേ അർത്ഥം വരുന്ന പല വാക്കുകൾ നമ്മൾക്ക് പുസ്തകങ്ങളിൽ നിന്നു കിട്ടാം കിട്ടും അപ്പോൾ നമുക്കൊരു മലയാളത്തിലൊരു ഉപന്യാസം എഴുതണമെങ്കിൽ അല്ലെങ്കിൾ ഒരു പാരഗ്രാഫ് നമ്മളെഴുതണമെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആവശ്യം ഉപന്യാസം ഒക്കെ എസ്സേ റൈറ്റിങ്ങൊക്കെ അവരെ കൊണ്ട് അവർക്കെപ്പോഴും ആവശ്യമായ കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരുമ്പോൾ നമുക്ക് ഒരേ അർത്ഥം വരുന്ന പല വാക്കുകൾ പിന്നേ മലയാളത്തിൽ കേട്ടിട്ടില്ലാത്ത എന്നാൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളുടെ അതേ അർത്ഥം വരുന്ന വാക്കുകളൊക്കെ നമ്മൾ അതിനകത്ത് എഴുതി ചേർക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മളീ വായന വായന നമുക്ക് വളരെ നല്ലയൊരു ഉപകാരമാണെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അപ്പോൾ അവർക്ക് പുസ്തകങ്ങൾ പല പുസ്തകങ്ങൾ പലരുടെയും നോവലുകൾ ഒക്കെ വായിക്കുമ്പോൾ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോളൊക്കെ പുതിയ പുതിയ സ്ഥലങ്ങളെപ്പറ്റിയും പുതിയ പുതിയ നാടുകളെപ്പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെപ്പറ്റിയും നമ്മൾ ചെന്നു കാണുന്നതു പോലെ നമുക്കനുഭവപ്പെടുന്ന രീതിയിലാണ് ഓരോ ചെ എഴുത്തുകാരും ഓർമ്മക്കുറിപ്പുകളും ചരിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെയൊരു താത്പര്യം ഒരു പുതിയ സ്ഥലം ചെന്നു കണ്ടതുപോലെ അവർക്ക് അനുഭവപ്പെടുമെന്ന് അവർ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരിൽ വായനാശീലം വളർത്താൻ നമ്മൾക്ക് സാധിക്കും അങ്ങനെ ബാലരമ കുട്ടികളിൽ ദീപികയൊക്കെ വായിച്ചു തുടങ്ങി യ ചെറുപ്പം മുതലേ അങ്ങനെ വായിച്ചവർ പിന്നീടതങ്ങോട്ട് മുതിർന്നാലും അവർ അത്യാവശ്യം ന്യൂസ് പേപ്പറെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പറെങ്കിലും മുഴുവനിരുന്നു വായിക്കാനവർ സമയം അവർ കണ്ടെത്താറുണ്ട്